നമ്മുടെ ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ ധാരാളം അസമത്വവും അതുപോലെത്തന്നെ തുല്യ നീതി ലഭിക്കാതെയും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാമുള്ളത് ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും സ്ത്രീകൾക്ക് അവിടെ സ്ഥാനക്കുറവും അവർക്ക് അവിടെ ഒരു പരിഗണ പരിഗണന ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ കടന്ന് പോകുന്നത് അവർക്ക് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് വരാമെന്ന് പല പരിപാടികളും സംഘടനകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പല പദ്ധതികളും പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് സമത്വം ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ധാരാളം സംഘടനകൾ ധാരാളം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് പല സ്ഥലങ്ങളിലും ധാരാളം മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നും അവരെ ഏത് കാര്യം ഏൽപ്പിച്ചാലും അത് പരിപൂർണമാകില്ല എന്നുള്ള പൊട്ട ചിന്തകളാണ് ഇതിനെല്ലാം കാരണം അവരും സമൂഹത്തിൽ സാധാ ജനങ്ങളെ പോലെ പുരുഷന്മാരെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് ആ അവകാശങ്ങളെയാണ് ഹനിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ധാരാളമായിട്ടും സ്ത്രീകൾ അസമത്വം അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് ആ രീതിയിൽ കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യ കേരളം ഈ ഭാഗങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ എജ്യൂക്കേറ്റഡ് ആയത് കാരണത്താൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിഫലം ഉണ്ടാകില്ല